ടൂറിസവ്യവസായം അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് ഇവിടെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ടിവിടെ ഈ വയനാട് ജില്ലയിൽ എന്നു വച്ചാൽ വയനാട് ഞാൻ വായനാട്ട് വയനാട് ജില്ലയിൽ നിന്നാണ് അതുകൊണ്ടു തന്നെ വയനാട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങള് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എത്തുന്നുണ്ട് പൂക്കോട് കുറുമ്പാലക് ആ പൂക്കോട് അതുപോലെ സൂചിപ്പാറ അതുപോലെ പടിഞ്ഞാറത്തറ ഡാം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടിവിടെ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാര് വരുന്നു വന്നു കാണുകയും പഴശ്ശി കുടീരം തന്നെ ഇവിടെയുണ്ട് പഴശ്ശി പാർക്കെന്നു പറയുന്ന പാർക്കുണ്ടിവിടെ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാര് ഡെയ്ലി എന്നു പറയുന്നത് പോലെ ബസിലും കാറിലും വാനിലും ഒരുപാട് വാഹനങ്ങളിലായി ഇവിടെ എത്തുന്നുണ്ട് അതുപോലെ കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ കുന്നിന്റെ മുകളില് രാവിലെ ഒരാറ് മണിക്ക് പോയാല് സൂര്യോദയം നമുക്ക് നേരിട്ട് തന്നെ വളരെ ക്ലീനായിട്ട് കാണാ ക്ലിയറായിട്ട് കാണാം നമ്മളെ ഒരു ഒരു മഞ്ഞിന്റെ മുകളിലായിട്ട് നിക്കൊന്നൊരു ഫീലിങ്ങാണ് നമുക്കവിടെ നിൽക്കുമ്പോൾ കിട്ടുക അത് അധികം ആ ആൾക്കാര് അറിഞ്ഞതായിട്ടത് കാണില്ല അതുകൊണ്ട് തന്നെ അത് കുറച്ചു പരസ്യങ്ങള് പരസ്യപ്പെടുത്തണം അതുകൊണ്ട് പിന്നെ ടി വിയിലാണെങ്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഈ പറയുന്ന കുറുമ്പാലക്കോട്ടപോലുള്ള സ്ഥലങ്ങള് അധികം ആൾക്കാരിലെത്താത്ത സ്ഥലങ്ങൾ നല്ല പരസ്യം നൽകുകയും അവിടെ ആൾക്കാരെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത സർക്കാർ കൈവരിക്കുകയും വേണ്ടതാണ്